ജീവിതശൈലി രോഗങ്ങള്ക്ക് യോഗ ഒരു നല്ല ഒരു ഇതാണ് മെഡിറ്റേഷൻ ആണ് ഒരുപാട് പേര്ക്ക് അസുഖങ്ങൾ മാറിയിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഭയങ്കര ശ്വാസംമുട്ടലും അതും ഇതും ഒക്കെയായിട്ട് എന്നിട്ട് യോഗ ചെയ്തിട്ട് നല്ലവണ്ണം നല്ല മാറ്റം ഉണ്ട് നല്ല മാറ്റം റിക്കവർ ആകുകയും ചെയ്തു പിന്നെ മെന്റലി സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരു കൂട്ടുകാരൻ ഇതേപോലെ മെഡിറ്റേഷൻ ഉള്ള യോഗ ചെയ്തിട്ട് നല്ല അങ്ങനെ ഒരുപാട് വലിയ വലിയ രോഗങ്ങള്ക്ക് ശമനം വരാന് വരാനായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങള്ക്ക് യോഗ നല്ലൊരു ഓരോരുത്തരെ അനുഭവങ്ങളുണ്ട് നമ്മുടെ അപ്പുറത്ത് ഒരു ചേട്ടന് യോഗ ചെയ്യുന്ന പുള്ളിയുണ്ട് പുള്ളിക്ക് അമിതമായ ബി പി യും അതും ഇതും ഒക്കെയായിരുന്നു അപ്പം അതിന് യോഗ ചെയ്ത് കഴിഞ്ഞപ്പഴത്തേക്കും നല്ല മാറ്റം ഉണ്ടാകുകയും യോഗ പിന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകുകയും എന്നിട്ട് നല്ല പാര്ശ്വഫലം ഉണ്ടാകുകയും പുള്ളി നല്ല വണ്ണം ഉള്ള ഒരു ഉള്ള ആളുണ്ടായിരുന്നു പുള്ളി നല്ല സ്ലിമ്മ് ആകുകയും സ്ലിമ്മ് ആയി നല്ല ഒരു ഷേപ്പ് ഉള്ള ഒരാൾ ആകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ യോഗ യോഗ ചെയ്യുന്ന ചെയ്തവരുടെ ഇതുണ്ട് മാനസികമായും ശാരീരികമായും മെന്റലി മെന്റലിയുള്ള ഡിപ്രഷന്കളില് നിന്നും അസുഖങ്ങളിൽനിന്നും വലിയ വലിയ അസുഖങ്ങളിൽനിന്ന് ഒക്കെ റിക്കവറ് ചെയ്യാനായിട്ട് യോഗ നല്ലൊരു ഇതാണ് അങ്ങനെ ഒരുപാട് പഠനങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളെല്ലാം യോഗ നല്ലൊരു ഇതാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അതിനേക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി നടത്തുകയും എല്ലാ അസുഖങ്ങള്ക്കും യോഗ നല്ലൊരു ഇതാണ് നമ്മുടെ അനുഭവത്തിന്റെ ഒരുപാട് ഇതുണ്ട് നമ്മുടെ അവിടെ പണ്ടൊരു സാർ ഉണ്ടായിരുന്നു പുള്ളിക്ക് കാലിനും കൈക്കും ഒക്കെ ഭയങ്കര വേദനയും നടക്കാൻ ഒക്കെ പക്ഷെ യോഗ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ നല്ല സ്മാര്ട്ട് ആകുകയും നല്ല ഒരു പോസിറ്റീവ് എനര്ജി ഉണ്ടാകുകയും ശാരീരികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകള്ക്കൊക്കെ ഒരു മാറ്റം വരികയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് പിന്നെ പറയാനാണെങ്കിൽ ഓര്ത്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് പേര്ക്ക് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളിൽനിന്നും ഒക്കെ യോഗ നല്ലൊരു റിലീഫിംഗ് മാര്ഗമാണ് യോഗ നമുക്ക് എല്ലാ കാര്യങ്ങള്ക്കും നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷന് തരുന്ന ഒരു ഇതാണ് യോഗ യോഗ ചെയ്തിട്ട് ആര്ക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇതുണ്ടായതാണെന്ന് ആരും പറയത്തില്ല എല്ലാവര്ക്കും നല്ല പോസിറ്റീവ് അഭിപ്രായമാണ് യോഗയെക്കുറിച്ച് യോഗ മെന്റലീല്നിന്നും ഫിസിക്കലി ഫിസിക്കലി മനുഷ്യന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകളിൽനിന്നും ബുദ്ധിമുട്ടുകളിൽനിന്നും ഒക്കെ യോഗ റിലീഫ് ചെയ്യാന് യോഗ നല്ലൊരു മാര്ഗമാണ് പിന്നെ അങ്ങനെ ഉള്ള മെഡിറ്റേഷന്സും അങ്ങനെ ഉള്ള കാര്യങ്ങള്ക്കെല്ലാം യോഗ നല്ലൊരു ഒരുപാട് അനുഭവങ്ങളുടെ ഇതില്നിന്ന് നമുക്ക് പറയാന് പറ്റും യോഗ നല്ലൊരു മാര്ഗമാ നല്ലൊരു ഇതാണെന്നും നല്ല ഒരു നമുക്ക് ഒരു പുത്തനുണര്വ്വ് വരും ജീവിത പ്രശ്നങ്ങളിൽനിന്നും മാനസിക പ്രശ്നങ്ങളില്നിന്നെല്ലാം റിലീഫ് ചെയ്ത് ചെയ്ത ഒരുപാട് ആള്ക്കാരുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യോഗ ചെയ്തിട്ട് മാറിയതും അങ്ങനെ ഇതുകൊണ്ട് ലൈംഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നവർക്കും അത് എല്ലാം മാറി നല്ല നല്ലൊരു അവർക്ക് നല്ലൊരു സുഖപ്രദമായ ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് നമുക്ക് യോഗ കൊണ്ട് സാധിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ സമൂഹത്തിലും നമ്മുടെ ചുറ്റുവട്ടത്തും നമുക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ യോഗയ്ക്ക് ഉണ്ട് അതായത് നടുവേദന വിതുമ്പുന്ന ആ കാല് കാൽ കഴപ്പ് അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങള്ക്ക് യോഗയിലൂടെ നമുക്ക് ഇതായി ഫ്ലെക്സിബിൾ ആയിട്ട് എഴുന്നേൽക്കാനും ഇരിക്കാനും ഒക്കെ ഒരു ഇത് കിട്ടാനായിട്ട് യോഗ കൊണ്ട് സാധിച്ചു എന്നുള്ള സാധിച്ച ഒരുപാട് പേരെ നമുക്ക് ഇവിടെ സമൂഹത്തിലും നമുക്ക് അറിയാവുന്നതായിട്ടും ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട് അതുകൊണ്ട് എന്റെ കുടുംബത്തിലും അങ്ങനെ കൂട്ടുകാരിലും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ പറഞ്ഞും അങ്ങനെ അറിഞ്ഞുള്ള കേട്ടും ഉള്ള നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ള പഠിച്ചവരും അടുത്തുള്ളവരും നമുക്ക് പേര്സണൽ ആയിട്ട് അറിയാവുന്നവര്ക്കും ഒക്കെ ഇങ്ങനെ യോഗ ചെയ്തിട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് നമ്മളെ അടുത്ത് അവർ പറഞ്ഞിട്ടും ഉണ്ട് മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടും ഉണ്ട് അങ്ങനെ ഒരോരുത്തരുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആണ് ഒരുപാട് ആൾക്കാർ യോഗ ചെയ്യാന് വരികയും യോഗ ഒരുപാട് ആള്ക്കാര് ഞങ്ങളുടെ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ചേച്ചിമാരൊക്കെ അമ്മച്ചിമാരും ഒക്കെ സ്റ്റെപ്പ് കയറാന് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നവരെല്ലാം യോഗ ചെയ്തിട്ട് ഓടി സ്റ്റെപ്പ് കയറുകയും അതങ്ങനെ ഒരുപാട് ആൾക്കാർ അറിഞ്ഞും കേട്ടും ഒക്കെ ഒരുപാട് പേർ പിന്നെ യോഗ ചെയ്യാനായിട്ട് തന്നെ താല്പ്പര്യ പ്രകാരം വരികയും ഒക്കെ ചെയ്ത സന്ദര്ഭങ്ങൾ ഒരുപാടുണ്ട് അവിടെയൊക്കെ ഒരു ഒരു ടെറസിന്റെ മേളിലാണ് യോഗ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അവര്ക്കും ആദ്യം കയറാനായിട്ട് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാർക്ക് പെൺപിള്ളേർ പ്രായമായ അമ്മച്ചിമാര്ക്കും ചെറുപ്പക്കാരികളായ ചേച്ചിമാര്ക്ക് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിന്നെ അതുകഴിഞ്ഞ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം ഒക്കെ കഴിഞ്ഞപ്പഴത്തേക്കും അവർ താഴോട്ട് പോം ഓടി അതിന്റെ മേളിൽ കയറാന് കയറുകയും അവർ അനായാസം യോഗ ചെയ്യുകയും ഒക്കെ ചെയ്തു ചെയ്യുന്നത് എന്റെ അനുഭവത്തിൽ എനിക്ക് അറിയാവോ അറിയാവോ അറിയാവോ എന്ന് അങ്ങനെ ഇപ്പം ഒരുപാട് യോഗാ സെന്ററ്കൾ തന്നെ അടുത്തൊക്കെ തന്നെയുണ്ട് ഒരുപാട് ആൾക്കാർ യോഗ ചെയ്യുന്നും ഉണ്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് നടക്കാന് പോവാനും മഴയൊക്കെ ആയതുകൊണ്ട് നടക്കാന് പോവാനും ഒക്കെ ബുദ്ധിമുട്ട് ഉള്ളവരെല്ലാം യോഗ ചെയ്യുന്നുണ്ട് യോഗ വീട്ടിൽ ഇരുന്നാൽ ചെയ്യാം അതിന്റെ അത് കോഴ്സ് ആയിട്ട് പഠിച്ചിട്ട് അത് പിന്നെ അത് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്ക് അറിയുകയും ചെയ്യാം വീട്ടിലിരുന്ന് ചെയ്യുന്നവരും കൂട്ടമായിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്ന് എല്ലാവരും കൂടിയിരുന്ന് ചെയ്യുന്നവരായിട്ട് ആണെങ്കിൽ ഒരുപാട് പേരെ അറിയാവുന്നവർ ഇപ്പഴും ഞാന് രാവിലെ നടക്കാനെക്കെ പോവുമ്പം ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് യോഗ ചെയ്തിട്ട് തിരിച്ച് വരുന്നതായിട്ട് കാണാം വെളുപ്പിനെ ഒരു ആറ് മണിക്ക് തുടങ്ങി ഏഴ് ഒരു മണിക്കൂറ് യോഗ ചെയ്യാറുണ്ട്